ഞങ്ങളുടെ പ്രദേശത്ത് നല്ലയൊരു നദി ഉണ്ട് മണിമല ആറ് എന്ന് പറയും അവിടെ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല വെള്ളപ്പൊക്കമായിരിക്കും അല്ലെങ്കിൽ കുഴപ്പം ഇല്ല പക്ഷേയെങ്കിൽ ആ ജലാശയത്തിൽ ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ ഒന്നും ഇല്ല നിലവിൽ പക്ഷേയെങ്കിൽ മൽസ്യബന്ധനത്തിന് ഈ ചെറിയ ചെറിയ ചെറിയ ചെറിയ മൽസ്യബന്ധനങ്ങൾ നടത്തുന്നുണ്ട് ആൾക്കാർ പിന്നെ ഈ പ്രദേശത്ത് ബോട്ടിംഗ് നല്ലവണ്ണം നടത്തണമെങ്കിൽ നദിക്ക് നല്ല ആഴം വേണം സംഗതി അപ്പം അത് ആ അത്രയും പറ്റിയ ഒരു തരത്തിലല്ല പക്ഷേയെങ്കിൽ ഗവണ്മെൻറ്റ് ടൂറിസത്തെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നല്ല പ്രവണതകൾ കണ്ടിട്ട് ടൂറിസം പാക്കേജിലൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രദേശത്തെ വരൾച്ച ചൂടുകാലത്ത് വരൾച്ച നേരിടുന്നുണ്ട് അപ്പം ചില ചില കിണറ്റുകളൊക്കെ പറ്റാറുണ്ട് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് പിന്നെ വെള്ളപ്പൊക്ക ഭീഷണി കാര്യമായിട്ട് ഇവിടെ ഇല്ല എങ്കിലും മഴ കണ്ടമാനം അടുപ്പിച്ച് അടുപ്പിച്ച് പെയ്യുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ചെറുതായിട്ട് വെള്ളം പൊങ്ങി റോഡുകളൊക്കെ ബ്ലോക്ക് ആകാറുണ്ട് എന്നൊക്കെ എന്നുള്ളതേ ഉള്ളൂ അതുപോലെത്തന്നെ ഞങ്ങളുടെ മൽസ്യബന്ധനം നടത്താൻ ഈ നദിയിൽ ബോട്ടിംഗ് സൗകര്യം വളരെ കുറവാണ് കാരണം ബോട്ടിംഗ് നടത്തണെങ്കിൽ അതിന് പറ്റിയ ആഴം വേണം ആഴം അവിടെ കിട്ടാറില്ല അപ്പം അല്ലെങ്കിൽത്തന്നെ നമ്മൾ ഡ്രിഗ്ഗ് ചെയ്തൊക്കെ അതിൻ്റെ ആഴത്തിൽ ഡ്രിഗ് ചെയ്ത് കുഴിച്ചെങ്കിൽ മാത്രമെ നമുക്ക് ആ മൽസ്യബന്ധനത്തിനുള്ള സൗകര്യം ഉളളൂ പിന്നെ നദി നല്ല വിശാലമായ ഓടുന്ന മണിമലയാറ് ഫേമസ് നദിയാണ് സംഗതി ഞങ്ങളുടെ പ്രദേശത്തോട് കൂടിയാണ് അത് കടന്നു പോകുന്നത് അത് തന്നെ അല്ല അതുപോലെത്തന്നെ അവിടെ നിന്ന് നമുക്ക് കുടിക്കാനുള്ള വെള്ളം പമ്പ് ചെയ്ത് നമ്മുടെ മലയോര പ്രദേശങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട് അതിന് അത് ഉപകരിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ഈ നമ്മുടെ ഏറിയായിലെ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ഈ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നദി വളരെ ഉപകാരപ്രദമായ ഒരു ഇതിലാണ് പിന്നെ തടാകങ്ങൾ നമ്മുടെ ഈ മലമ്പ്രദേശം ആയതിനാൽ തടാകങ്ങൾ വളരെ കുറവാണ് ഇവിടെ തടാകത്തിന് നമ്മൾക്ക് ചെറിയ ചെറിയ കുളങ്ങൾ അത് വീടുകളിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ടാകുന്നതെ ഉള്ളൂ അല്ലാതെ കാര്യമായ ഒരു തടാകം ഈ പ്രദേശങ്ങളിൽ ഇല്ല ഇല്ല പിന്നെ വിനോദ സഞ്ചാരികൾക്ക് ഈ പ്രദേശം ഈ ബോട്ടിംഗ് സൗകര്യം ഇല്ലാത്തതിനാൽ അവർ അതിന് കൂടുതൽ ഇത് ചെയ്യത്തില്ല കാരണം വിദേശത്തുനിന്ന് വരുന്നവരൊക്കെ കൂടുതലും നമ്മുടെ ബോട്ടിംഗ് സൗകര്യവും കാഴ്ചകളുമൊക്കെ കാണുന്നതിനും ഒക്കെ ആണല്ലോ കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് കൂടുതൽ ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരും